ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഒരു സാരി വാങ്ങിയിരുന്നു പക്ഷെ ഞാനത് ഇന്നാണത് ഓപ്പൺ ചെയ്തത് ഡെലിവറി ആയിട്ട് ഇന്നലെ ഡെലിവറി ആയതാണ് പക്ഷെ ഞാനിന്നാണത് ആ തുറന്നുനോക്കുന്നത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോള് ആ സാരിയുടെ കരഭാഗം ഒരു പലയിടത്തായിട്ടു കീറിയിട്ടുണ്ട് അപ്പോള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു തരത്തിലല്ല അത് ഉള്ളത് അപ്പോള് എനിക്കത് റിട്ടേൺ ചെയ്യണം എന്നുണ്ട് ഞാന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെയാണത് ഓർഡർ ചെയ്തു വന്നത് പക്ഷെ ഞാൻ വീട്ടിലിന്നലെ വരുമ്പോള് ഇണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നലെ എനിക്കതു നോക്കാൻ സാധിച്ചില്ല ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത് അപ്പോഴാണ് ഞാനതു തുറന്നു നോക്കുന്നത് തുറന്നുനോക്കിയപ്പോള് അതിൻ്റെ പല കരഭാഗങ്ങളും കീറിയതായിട്ടു കാണുന്നുണ്ട് ഇപ്പോഴത് ഉപയോഗിക്കാൻ കഴിയുന്നൊരു തരത്തിലല്ല അത് ഉള്ളത് അപ്പോള് അതുകൊണ്ട് എനിക്കത് റിട്ടേൺ ചെയ്യണമെന്നുണ്ട് അപ്പോഴതിൻ്റെ റിട്ടേൺ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറയണം പറഞ്ഞുതരണം എനിക്ക്